ആ ചേച്ചി ഞാൻ കുറച്ച് ദൂരെ നിന്ന് നെയ്യാർ ഡാം കാണാനായിട്ട് വരുന്ന ഒരു ടൂറിസ്റ്റ് ആണ് അപ്പോൾ അവിടത്തെ വിശദമായി കാര്യങ്ങളൊന്ന് പറയാമോ അവിടെ എന്തൊക്കെയാണ് ഉള്ളത് നിലവിൽ നമുക്ക് എന്തൊക്കെ കാണാനുണ്ട് അല്ലെങ്കിൽ

അവിടെ ആ ചീങ്കണ്ണികൾ എങ്ങനെ സുരക്ഷിതമായിട്ടാണോ അവിടെ പാർപ്പിച്ചിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ആ ആ അവിടെ എത്രയാണ് മാനിൻ്റെ അതിന് പ്രത്യേകമായി ഫീസ് വല്ലതും ഉണ്ടോ ചാർജുണ്ടോ അതെ ആ കയറി കാണുന്നതിന് അതെ

മറ്റ് എന്തൊക്കെയാണ് ബോട്ടിംഗ് ഉണ്ടോ അവിടെ ആ അതിലും പാസ് അതിലും പാസ് എടുക്കണോ ആ മറ്റ് എന്തൊക്കെയാണ് അവിടെ ഇത് കാണാനായിട്ടുള്ളത് ടൂറിസ്റ്റുകൾക്ക് ഓക്കെ ശരി എന്നാൽ